എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് എൻ്റെ വീടിനടുത്ത് നിന്നും ഒരു ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സി ബി എസ് ഇ സ്കൂളിലാണ് ഈ സ്കൂള് എസ് ഡി സിസ്റ്റേസ്സ് നടത്തുന്ന ഒരു സി ബി എസ് ഇ സ്കൂളാണ് അവിടുത്തെ ഫീസ് ഘടന മൂന്ന് ടേമിലായിട്ട് നാലായിരം രൂപയാണ് മൂന്ന് ഓരോ ടേമിലും മേടിക്കുന്നത് അപ്പം ഒരു ടേമിൽ നാലായിരം രൂപ വെച്ച് മൂന്ന് ടേം അത് കൂടാതെ ഒരു സ്പെഷ്യൽ ഫീസ് കൂടിയുണ്ട് അത് നാലായിരത്തിയഞ്ഞൂറ് രൂപയാണ് അതിന് ആകുന്നത് പിന്നെ ബസ് ഫീസ് കൊടുക്കുന്നുണ്ട് ബസ് ഫീസ് എണ്ണൂറ് രൂപയാണ് ഒരു കുട്ടിക്കാകുന്നത് ഈ ഫീസ് ഘടനയില് കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫീസ് ഘടനയാണ് പറഞ്ഞത് ഇത് എട്ടാം ക്ലാസ് മുതൽ ഇതിന് വർദ്ധനവുണ്ടാകും ഇതിന് താഴെയുള്ള സ്കൂളുകളിൽ ഇതില് ഫീസ് ഘടനയില് കുറവായിരിക്കും ഇത് അത്യാവശ്യം സ്റ്റാൻഡേഡ് ആയി പോകുന്ന ഒരു സി ബി എസ് ഇ സ്കൂളാണ് ഇവിടെ മറ്റ് സ്ഥലങ്ങളിലുള്ള സ്കൂളുകളെ അടുത്തുള്ള മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഈ സ്കൂളിൽ ഫീസ് കുറവാണ് ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ ടേമിന് അയ്യായിരവും ആറായിരവും മേടിക്കുന്ന സ്കൂളുകളുമുണ്ട് ബസ് ഫീസ് ബസ് ഫീസിനത്തിലും ഇത്രയും തുക എണ്ണൂറ് രൂപ വെച്ച് ആകുന്നുണ്ട് ബസ് ഫീസ് തുക എണ്ണൂറ് രൂപയാകുന്നുണ്ട് ഒരു ടേം എന്നുപറയുമ്പോൾ ഒരു അക്കാഡമിക് ഇയറിൽ മൂന്ന് ടേമാണ് ഇവരുദ്ദേശിക്കുന്നത് പിന്നെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് ഒമ്പതോ പത്തോ ക്ലാസ്സുകളിൽ നാല് ടേമായിട്ടാണ് ഫീസ് മേടിക്കുന്നത് നാല് ടേമിലും നാല് ഒരു അക്കാഡമിക് ഇയറിനെ നാലായിട്ട് തിരിച്ച് നാല് ടേമിലുള്ള ഫീസുകൾ മേടിക്കുന്നുണ്ട് പിന്നെ സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് സ്കൂളിൻ്റെ അന്തരീക്ഷവും വളരെ നല്ലതാണ് സ്കൂളിൽ പിള്ളേരെ വിടാനും നമുക്ക് സന്തോഷമേയുള്ളൂ പിന്നെ അതുകൂടാതെ വരുന്ന ഫീസുകൾ യൂണിഫോം ഫീ യൂണിഫോം മേടിക്കുന്നതിനാവശ്യമായ ഫീസ് നമ്മൾ കൊടുക്കണം പിന്നെ വരുന്നത് പുസ്തകത്തിനുള്ള ഫീസ് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾക്കായിട്ടാണ് ഈ സ്പെഷ്യൽ ഫീസ് മേടിക്കുന്നത് ഈ ഫീസ് കൊണ്ടാണ് എക്സ്ട്രാ ഡാൻസ് പാട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കായിട്ട് ഇത് അപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല സ്കൂളാണ് പുതിയതായിട്ട് ആദ്യം മക്കളെ എൻ്റെ കുട്ടികളെ ഞാൻ ചെറുപ്പം മുതലേ അവിടെയാണ് വിടുന്നത് എൽ കെ ജി യു കെ ജി മുതലേ എൽ കെ ജി യു കെ ജി മുതല് അവിടെയാണ് വിടുന്നത് എൽ കെ ജിയിലൊക്കെ സ്കൂൾ ഫീസ് കുറവായിരുന്നു പിന്നെ ഓരോ വർഷവും പത്ത് ശതമാനം വെച്ച് ഓരോ ക്ലാസ്സിലും ഫീസ് വർദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസകാര്യത്തിൽ അതൊരു നല്ലതായിട്ട് തോന്നുന്നു ഈ സ്കൂള് മികച്ച രീതിയില് നടത്തുന്ന ഒരു സ്ഥാപനമാണ് സ്കൂളിൻ്റെ പേര് ക്യൂൻ മേരി പബ്ലിക് സ്കൂൾ എന്നാണ് ഈ സ്കൂളിന് ഗവൺമെൻറ്റിൽ നിന്ന് കാശൊന്നും കിട്ടുന്നില്ല സ്കൂളിൽ കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന കാശ് ഉപയോഗിച്ചാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തവും നടക്കുന്നത് അപ്പോള് നല്ല അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത് അവർക്കുള്ള ശമ്പളവും മറ്റ് സ്കൂൾ ചെലവുകളുമെല്ലാം ഈ തുക ഈ കൊടുക്കുന്ന ഫീസിൽ നിന്നുമാണ് ഇവര് കണ്ടെത്തുന്നത് സ്കൂളിലെ അപ്പം ഇത്രയുമൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് സ്കൂളിൻ്റെ ഫീസ് ഘടനയെക്കുറിച്ച് ഞാനൊന്നുകൂടെ പറയാം ആറാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് അത് മൂന്ന് ടേമായിട്ട് തിരിച്ചിരിക്കുന്നു ഓരോ ടേമിലും നാലായിരം രൂപ ഫീസ് നൽകണം പിന്നെ ഒരു സ്പെഷ്യൽ ഫീസ് നൽകണം സ്പെഷ്യൽ ഫീസ് നാലായിരത്തിയഞ്ഞൂറ് രൂപയാണ് പിന്നെ നമ്മൾ സ്കൂളിലേക്കുള്ള ബസ് ഫീസ് നൽകണം ഇവിടെ നിന്നാറ് കിലോമീറ്ററുണ്ട് ഒരു കുട്ടിക്ക് എണ്ണൂറ് രൂപയാണ് ബസ് ഫീസ് വരുന്നത്